അപ്പോൾ അതിൻ്റെ ടിക്കറ്റ് ബുക്കിങ്ങിൻ്റെ സംഭവമെന്നു പറയുമ്പോൾ ഒരു നല്ല സംഭവമാണ് അതായത് വീട്ടിൽ ഇരുന്നു തന്നെ ഒറ്റ പണ്ട് നമ്മൾ നേരിട്ട് നടന്നു പോകുകയോ കാറിൽ പോയോ എന്തൊക്കെയോ സ്ഥലത്തു പോയി മേടിക്കുക പെട്രോൾ ചിലവ് നടന്ന് മടുക്കും അങ്ങനെ കുറേ ഇങ്ങനെ അയാളെ കാണണം ഇയാളെ കാണണം ഇവിടെ നിന്ന് ഇത് മേടിക്കണം അത് എന്ത് ചെയ്യണം കുറേ പണിയുണ്ടായിരുന്നു പണ്ട് പക്ഷേ ഇപ്പോൾ ഒറ്റ ഒരു വിരൽ മതി ഫോണിങ്ങനെ കുത്തി കുത്തി ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണേ കൂടി പോയാൽ ആൾക്കാരെ വിളിച്ച് ഇങ്ങനെ ടിക്കറ്റ് എന്താ ബുക്ക് ചെയ്യാനുള്ളത് പ്രൊസീജർ ചോദിക്കുക അങ്ങനത്തെ ചില കാര്യങ്ങളുള്ളൂ അത് ശരിക്കും പറഞ്ഞാൽ ടിക്കറ്റ് ബുക്കിങ്ങെന്നു പറയുന്നൊരു നല്ല സംഭവം ഓൺലൈൻ വഴി ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നു എന്നുള്ളൊരു പണ്ടൊക്കെ ആണെ ട്രെയിൻ ടിക്കറ്റിനു വേണ്ടി ഭയങ്കര ഇതായിരിക്കും ഇപ്പോൾ ഒരു ലക്കിനങ്ങ് ടിക്കറ്റ് ബുക്ക് ചെയ്യുക പോകുക അല്ലേ ഇപ്പം അമേരിക്ക വേണേ അവിടുന്ന് വെളിയിൽ പോകാൻ പോലും എന്താ ടിക്കറ്റ് ബുക്ക് ചെയ്യണേ ഇവിടിരുന്നിട്ടിന്ത്യയിൽ ഇരുന്നിട്ട് അമേരിക്കയുടെ പോകാനുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്യുക അങ്ങനെയാണ് ആ സംഭവം അപ്പോൾ അതും ഒരു നല്ല വിഷയാണിങ്ങനെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് പോകുന്നത് പിന്നെ അതിൻ്റെ പ്രശ്നം ഉണ്ടെന്ന് വരുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ എന്താ ഈ ജി എസ് ടി പൈസ നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്യുമ്പോൾ കുറച്ച് എക്സ്ട്രാ പൈസ ഇട്ട് ചെയ്യുന്നത് അതായത് നമ്മൾ നോർമലി കൊടുക്കുന്ന പ്രൈസിൻ്റെ കുറച്ച് എക്സ്ട്രാ അത് കുറച്ച് കുറക്കുമായിരുന്നത് നല്ലതായിരുന്നു നമുക്ക് ഇച്ചിരി കൂടുതൽ പോലെ എനിക്ക് തോന്നി എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു എന്താ ഒരു ഇതാ പറയുന്നത് അതായത് എല്ലാവർക്കും തോന്നണമെന്നില്ല ചിലപ്പം ചിലവർക്ക് നോർമലായിരിക്കും റിച്ചായിട്ടുള്ളാൾക്കാർക്കിങ്ങനെ ഒന്നും പക്ഷേ ഈ മിഡിൽ ക്ലാസ്സിൽ വരുമ്പോൾ മിഡിൽ ക്ലാസ്സിൽ വരുന്നവർക്ക് ഇതൊക്കെ കുറച്ച് കൂടുതലായിട്ട് തോന്നും അത് അവർ മിഡിൽ ക്ലാസ്സ് അറിയാമല്ലോ എല്ലാം ലിമിറ്റഡ് ബഡ്ജറ്റ് എല്ലാം ഒരു ഒരു ഒരു ചിട്ടടക്കത്തോടെ ജീവിച്ച് പോകുന്ന ആൾക്കാരാണി മിഡിൽ ക്ലാസ്സുകാർ ഈ പൈസയുടെ കാര്യം ആണെങ്കിലും ഏതു കാര്യം ആയാലും മിഡിൽ ക്ലാസ്സെന്നു പറയുമ്പോൾ അങ്ങനെയാണ് അപ്പോൾ ജി എസ് റ്റീയുടെ പൈസ ഒന്ന് കുറക്കുകയായിരുന്നേ കുറച്ചും കൂടി നല്ലതായിരുന്നു അത് അതൊരു മെയിൻ പ്രശ്നമാണ് നമുക്കിപ്പം മിഡിൽ ക്ലാസ് മേനേജ് ചെയ്തു പോയാലും കുഴപ്പമില്ല ഇത് ലോവർ മിഡിൽ ക്ലാസെന്നൊക്കെ പറയുമ്പോൾ അവർക്കൊക്കെ നല്ല രീതിക്ക് പാടായിരിക്കും ഓൺലൈനിൽ ബുക്ക് ചെയ്യുമ്പോൾ എക്സ്ട്രാ പൈസ ആയിരുന്നു ഇപ്പോൾ ഒരു ടിക്കറ്റൊക്കെയാണെ പോട്ടെ ഇപ്പം ഒരു പത്ത് പതിനഞ്ച് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യുമ്പോൾ ഒരു ജി എസ് ടി കൂടുമ്പോൾ കൂടുമ്പോൾ കൂടുമ്പോൾ അതിൻ്റെ വിലയെന്നൊക്കെ പറയുമ്പോൾ നല്ല രീതിക്ക് കൂടും അപ്പോൾ അതിച്ചിരി കുറക്കുമായിരുന്നേ കുറച്ചു കൂടി നല്ലതായിരുന്നു അപ്പം അതാണ് അതിൻ്റെ ഒരു നെഗറ്റീവെന്നു പറയുന്നത് ബാക്കിയുള്ള രീതിക്ക് ഒരു നല്ല കാര്യം തന്നെയാണ് ഈ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത്